സമയം എന്നത് നിങ്ങളുടെ ആ സമയം തുടെ ഈ സമയമെന്നു പറഞ്ഞാൽ എല്ലാവർക്കും പ്രത്യേകമായിട്ടും എല്ലാവർക്കും വേണം അപ്പോൾ ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഓരോ സ്ഥലത്തേക്കും ഒരവിടേക്കു പോകാനും എവിടെയെങ്കിലും സമയം തന്നെ വേണമല്ലോ അപ്പോൾ സമയം കൃത്യമായി കണ്ടെത്തണം ഒരു സ്ഥലത്ത് പണിയെടുക്കാൻ നേരത്ത് സമയം കൃത്യമായി കണ്ടെത്തി അതിലൂടെ നമ്മളെന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതിലൂടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കണം പിന്നെ സമയം സ ഓരോരോ സമയത്തിലാണ് നമ്മളെല്ലാവരും ഒരു സമയത്തിലാണ് ഈ സമയത്തിലാണ് നമുക്കീ ഈ ഇത് ചെയ്യണം എന്നാണ് അപ്പം സമയമെന്നു പറഞ്ഞത് വളരെ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റായൊരു കാര്യമാണ് അപ്പോൾ സമയം പറഞ്ഞാൽ സമയം കൃത്യമായി കൃത്യതമായി നിങ്ങളെല്ലാ സമയം ചെയ്ത് ചെയ്തു തന്നെ പോകണം സമയം കൃത്യമായി നോക്കി ചെയ്തു വിടാതെ കാര്യങ്ങളിലൂടെ നോക്കി ചെയ്തു പോയി കണ്ടെത്തി എല്ലാം ചെയ്തു വരണം അപ്പോൾ സമയമെന്നു പറയുമ്പോൾ കൃത്യമായി നോക്കി ആണ് ഒരോരോ പട്ടിക്കുലർ സമയത്തും ഓരോരോ പോകാൻ നേരത്തും എവിടെയെങ്കിലും പോകാൻ നേരത്തും അല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്താൻ നേരത്തൊക്കെ ഓരോരോ സമയമുണ്ടല്ലോ അപ്പം അതാതാണ് ചെയ്തു ചെയ്തു ചെയ്തു പോകണം ഈ സമയത്ത് ഈ ഈ സമയത്ത് നമ്മൾ പഠിക്കണം ഈ സമയത്ത് വർക്ക് ഈ സമയത്ത് ഉറങ്ങും ഒരാൾക്ക് പർട്ടിക്കുലർലി ഒ ഒരാൾക്ക് ഏഴ് മണിക്കൂറ് ഏഴ് എട്ട് മണിക്കൂറുറങ്ങണം അപ്പം സ മണിക്കൂർ അപ്പം ഇത്ര മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നത് ഇതിനു വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ നോക്കും ഒരു മണിക്കൂർ ഫോണിലും ഒരു മണിക്കൂറിവിടെ എവിടെ ഓരോരോ പർട്ടിക്കുലർ നമുക്ക് ചെയ്യാമല്ലോ അപ്പം അതുപോലെ തന്നെ ഇതതാ ഇതതാ ചെയ്തു ചെയ്ത് അങ്ങനെ ഈ സമയത്ത് ഇതും ഈ സമയത്തതും എന്നൊക്കെ ചെയ്തു ചെയ്ത് നമ്മൾ ഓരോരോ സമയത്തും ഓരോരോതും ചെയ്തു പോകണം ഇപ്പം സമയം ഓരോരോ സമയത്തിനോരോരോ സമ സമയം കണ്ടെത്തി ചെയ്തു പോയി തന്നെ ഓരോരോ ജീവിതം സ്മൂത്തായിട്ട് ഇനി പോകും നാളെയെല്ലാം